പിന്നെ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ കുറേ അന്ധവിശ്വാസങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യാറില്ല അതുകൊണ്ട് എനിക്ക് അതിനെ പറ്റി ഡീറ്റൈൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞ് തരാൻ അറിയില്ല പക്ഷേ എൻ്റെ അറിവ് വച്ചിട്ട് ഞാൻ പറയുകയാണ് എന്താണ് ചിലവരൊക്കെ പറയും അടുപ്പും അമ്മിയും ഒരുമിച്ച് വയ്ക്കാൻ പാടില്ല അത് ലക്ഷണക്കേടാണെന്ന് പറയും പിന്നെ നമ്മളെ ചിരവ നമ്മൾ തേങ്ങ ചിരവണ ചിരവ തെക്കോട്ട് വയ്ക്കാൻ പാടില്ല അത് വടക്കോട്ട് വച്ച് ചെയ്യണം എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ കുളിക്കണം കുളിക്കാതെ ഭക്ഷണം പാചകം ചെയ്യാൻ പാടില്ല അതൊരു ലക്ഷണക്കേടാണ് അതൊരു അപ്പം അത് ലക്ഷണക്കേടുകൾ ആണെന്ന് പണ്ടത്തെ വല്യമ്മുമ്മമാരൊക്കെ പറയുമ്പം ഞങ്ങൾ കേട്ടിട്ടുണ്ട് പിന്നെ എന്താണ് അങ്ങനെയൊന്നും ശരിക്കുമില്ല ഒക്കെ അന്ധവിശ്വാസമാണ് എന്നാണ് ഞാൻ പറയുന്നത് പിന്നെ പിന്നെ പീരിഡ്സ് ആയി കഴിഞ്ഞാൽ പാചകം ചെയ്യാൻ പാടില്ല എന്താണ് അവർ മാറ്റി നിർത്തപ്പെടുന്നു പീരിഡ്സ് ആകണ ടൈമിൽ പാചകം ചെയ്യുന്ന ഭാഗത്തേക്ക് വരരുതെന്ന് പറയാണ് പിന്നെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ഫുഡ് ഉണ്ടാക്കുമ്പോൾ എന്താണ് ഓരോ രീതിക്കുള്ളത് ഇതാണ് ചെയ്യേണ്ടത് പക്ഷേ എല്ലാവരും പറയണ എന്താണ് ഭക്ഷണം പാചകം ചെയ്യുമ്പോ നല്ല വൃത്തിക്കുള്ള കാര്യങ്ങളക്കെ ചെയ്യണം എന്നാണ് ശരിക്കും അതാണ് സത്യം പക്ഷേ ഹെൽത്തിയായിട്ടുള്ള ഫുഡാണ് ഉണ്ടാക്കേണ്ടത് പക്ഷേ അതിൻ്റെ പകരം കുറേ അന്ധവിശ്വാസങ്ങൾ മാത്രം വച്ചിട്ടൊന്നും പാചകം ചെയ്യേണ്ട ആവശ്യമില്ല ഈ കാലത്ത് നമുക്ക് എങ്ങോട്ടും തെക്കോട്ടോ വടക്കോട്ടോ എവിടേക്കെങ്കിലും വച്ചിട്ട് നമുക്ക് പാചകം ചെയ്യാനല്ല ഫുഡും നല്ല ഹെൽത്തി ആയുള്ള ഫുഡും ആയാൽ മതി പിന്നെ ആണെങ്കിൽ നമ്മൾ കിച്ചണ് അതൊരു സ്ഥാനം നോക്കും അതായത് അടുപ്പിൻ്റെ ആണെങ്കിലും നമ്മൾ കിച്ചണ് വർക്ക് ചെയ്യുന്ന ഏരിയ ആണെന്നുണ്ടെങ്കിലും സ്ഥാനം നോക്കും അപ്പം സ്ഥാനം നോക്കുമ്പോൾ എനിക്ക് പറയണ എനിക്ക് അതിനൊന്നും തീരെ വിശ്വാസമില്ല കാരണം സ്ഥാനത്തിന് അനുസരിച്ചിട്ടാണ് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഭക്ഷണം ചില സമയത്ത് കേട് വരും കേട് വന്ന് കഴിഞ്ഞാൽ പ്രായമുള്ള ആൾക്കാര് പറയും അത് അടുപ്പിൻ്റെ സ്ഥാനം ശരിയല്ല അതുകൊണ്ടാണ് ഇങ്ങനെ കേട് വരുന്നതെന്നാണ് പക്ഷേ അതൊന്നും അല്ല കാര്യം ഭക്ഷണം നല്ല രീതിക്ക് ഉണ്ടാക്കും ആണെ സ്ഥാനം ഒന്നും ഒരു പ്രശ്നമേ അല്ല